വെള്ളം അരിക്കാനും ശുദ്ധീകരിക്കാനും ഒക്കെ നമ്മൾ പിന്തുടരുന്ന രീതികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ടും മഴക്കാലത്താണ് നമ്മൾ വെള്ളം അരിച്ച് അതായത് എടുക്കാൻ ശ്രമിക്കാറ് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാല് തൂണ് പോലെ വടി ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ നടുക്ക് പിന്നെ ഒരു നല്ലൊരു വൃത്തിയുള്ളൊരു തുണി ഇടും അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മഴ വെള്ളം വരുമ്പോൾ നമുക്ക് താ അടിയിലേക്ക് നല്ല നമ്മൾ നല്ല വൃത്തിയിൽ കഴുകിയ ഒരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ വെള്ളം അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല തെളിഞ്ഞ നല്ല ശുദ്ധീകരിച്ച വെള്ളമായിരിക്കും നമുക്ക് കിട്ടുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റിയ മെയിനൊരു ഇത് എൻ്റൊരു അഭി അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നല്ലവണ്ണം തള പ്പിച്ച് വെള്ളം ഉപയോഗിക്കുക പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് തിളപ്പിച്ച് കഴിയുമ്പോൾ അതായത് നമുക്ക് കുറേയൊക്കെ കുറേനേരം വെച്ചിട്ടുണ്ടെ ചിലപ്പോൾ അടിയിൽ ചെളിപോലെയൊക്കെ കാണാം അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മളെന്ത് ചെയ്യുക തലേദിവസം വെള്ളം അതായത് നമ്മൾ കുടിക്കാനൊക്കെ വെക്കുന്ന വെള്ളം തലേദിവസം താ കുടിക്കാനും വ നമ്മൾ ആവശ്യത്തിനൊക്കെ എടുക്കുന്ന വെള്ളം തലേദിവസം ഇങ്ങനെ വെച്ചിട്ട് ഒരു ബക്കറ്റിൽ ഒഴിച്ചുവെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേദിവസം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ചളിയൊക്കെ അടിയിലേക്ക് ഊറിയിട്ട് മേലെയുള്ള നല്ല വെള്ളം നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാനും കാര്യത്തിനുമൊക്കെ നമ്മുക്കെടുക്കാൻ പറ്റും